നമ്മുടെ കുടുംബത്തിലെന്നു വെച്ചാൽ കുടുംബ ഇപ്പോൾ ഒരച്ഛനും അമ്മയും മക്കളും അടങ്ങുന്നതാണ് ഒരു വീട് അങ്ങനെയല്ല പക്ഷേ അവരെ ഈ അച്ഛനമ്മേൻ്റെ സഹോദരങ്ങൾ സഹോദരികൾ അവരെല്ലാം കൂടിയിട്ടുള്ളതും ആണ് നമ്മൾ ഒരു കുടുംബം എന്നു വെച്ചാൽ നമ്മുടെ കുടുംബം എന്നു വെച്ചാൽ തറവാടാണ് നമക്ക് പ്രാധാന്യം പ്രാ തറവാടെന്നു വെച്ചാൽ ഒരു കുടുംബത്തിലുള്ള എല്ലാ ആൾക്കാരും എല്ലാ ആൾക്കാരും എന്നു വെച്ചാൽ ആ കുടുംബത്തിൽ വരുന്ന എല്ലാവരും ആ തറവാട്ടിൽ ഒത്തുകൂടി ഇരിക്കണം തറവാട്ടിലൊത്തു കൂടിയിട്ട് തറവാട്ടിൽ നമുക്ക് പ്രത്യേകിച്ച് ദൈവങ്ങളുണ്ട് എന്നു വെച്ചാൽ ഒരു കുറത്തിയമ്മ തൊണ്ടച്ചമാരി വിഷ്ണുമൂർത്തി പടിഞ്ഞാട്ട് ചാമുണ്ഡി ഇങ്ങനെയൊക്കെ ദൈവം നാഗദൈവം അങ്ങനെ ആ തറവാട്ടിൽ കുറേ ദൈവങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നിച്ചു കൂടിയിട്ട് ആ ദൈവങ്ങൾക്കു വേണ്ട എല്ലാ കാര്യങ്ങളും വർഷത്തിലൊരിക്കൽ വിളക്ക് എന്നു വെച്ചാൽ ആ കുടുംബത്തിൽ പെട്ട ഫാമിലി ആ വീട്ടിലിരുന്നിട്ട് എല്ലാ ദിവസവും രണ്ടു നേരം വിളക്കു വെക്കണം അടിച്ചു തളിയും വിളക്കും നിർബന്ധം വിളക്ക് വെക്കണം വിളക്കു വെക്കാതിരിക്കാൻ പറ്റില്ല പിന്നെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവർ വിളക്ക് വെക്കണം എന്നില്ല അതിന് വേറാരെങ്കിലുമാണ് വിളക്കു വെക്കൽ പക്ഷേ എന്നു വെച്ചാൽ അല്ലാ അല്ലാത്ത വർഷത്തിലൊരു പ്രാവശ്യം നമ്മൾ തറവാട്ടിൽ കൈ വീതു കഴിക്കും പിന്നെ തെയ്യം ചിലപ്പോൾ തെയ്യം തെയ്യം കഴിക്കും അങ്ങനെയല്ലാ തെയ്യം എല്ലാ വർഷം കഴിക്കില്ല രണ്ടു വർഷത്തിലൊരിക്കേ അങ്ങനെയാണ് തെയ്യം കഴിക്കൽ അപ്പോൾ വർഷം വർഷം കൈ കൈ വീതു വെയ്ക്കണം കൈ വീതു വെയ്ക്കണം എന്നു വെച്ചാൽ നമ്മൾ എല്ലാ കുടുംബക്കാരും തറവാട്ടിലൊത്തു കൂടിയിട്ട് ആൻ കുറത്തി അമ്മയ്ക്ക് ഒരു വഴമ്പ് കൊടുക്കലാണ് ഒരു കോഴിനെ കൊന്നിട്ട് നാടൻ കോഴിനെ കൊന്നിട്ട് കറി വെച്ചിട്ട് വിളമ്പലാണ് കുറത്തിയമ്മക്കുള്ളത് കൈ വിട് അട അടയുണ്ടാക്കും അടയെന്നു വെച്ചാൽ നമ്മൽ വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ അടയല്ല അതു നമുക്ക് പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല കുടുംബത്തിലുള്ള ആണു ആണുങ്ങളും ആൺകുട്ടികളും എല്ലാം കൂടിയിട്ട് ചെയ്യുന്നതാണ് അരി പൊടിച്ചിട്ട് നെല്ല് കുത്തിയിട്ട് അരിയാക്കിയിട്ട് അരി പൊടിച്ചിട്ട് അതിനെ അട ശർക്കരയും തേങ്ങയെല്ലാം ഇട്ടിട്ട് ഇതാക്കിയിട്ട് അട അട ചുടുന്ന ഒരു പ്രത്യേക സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ഓലയിട്ടിട്ട് ചുട്ടെടുക്കലാണ് വാഴയിലയിൽ പരത്തിയിട്ട് ഓല ഇട്ടിട്ട് ചുട്ടെടുക്കലാണ് ചെയ്യുന്നത് ആ അതാണ് അട എന്നിട്ട് അത് നമുക്ക് പ്രധാന പ്രസാദമാണ് നമ്മുടെ തറവാട്ടിലത്തെ പ്രധാന പ്രസാദമാണ് അത് പിന്നെ എല്ലാ കുടുംബക്കാരും അത് പങ്കുചേരണോം വേണം പിന്നെ അതിനു വെളിച്ചപ്പാടെന്നു പറയും അവർ വരാറുണ്ട് വന്നിട്ട് അവർ നമ്മുടെ താനത്തു കയറിയിട്ട് പൂജയെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ തറവാട്ടിലത്തെ അത് പാരമ്പര്യമായിട്ട് ആചരിച്ചുകൊണ്ടും അനുഷ്ഠിച്ചു കൊണ്ടും വരുന്നൊരു പ്രവൃത്തിയാണ് അതു അതിനു മാറ്റമില്ല അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെ ചെയ്യണം അതിനൊരു മാറ്റം വരുത്താനും പാടില്ല അതുപോലെ തന്നെ പിന്നെ നമുക്ക് താനോണ്ട് താനത്തും അങ്ങനെ തന്നെയാണ് മാസം മാസം സംക്രാന്തിക്ക് മറ്റും പൂജ പൂജയുണ്ട് മാസം മാസം പൗർണ്ണമി പൂജ പിന്നെ ചിങ്ങമാസത്തിൽ ഒരു മാസം മുഴുവൻ വിളക്കു വെക്കും നമ്മൾ അതു പറയല് ആ വിളക്ക് കത്തിക്കും ആ പിന്നെ കളിയാട്ട മഹോത്സവം വർഷത്തിലൊരിക്കൽ കളിയാട്ട മഹോത്സവമുണ്ട് ശരിക്കും നൂറ്റൊന്നു തെയ്യങ്ങളെ കെട്ടിയാടും എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഏഴ് ദിവസത്തെ കളിയാട്ടമാണ് നടക്കുന്നത് ഏകദേശം എല്ലാ എല്ലാ തെയ്യം ത്തിൻ്റെ കോലങ്ങളും കെട്ടിയാടാറുണ്ട് അതെന്നു വെച്ചാൽ നമ്മൾ എല്ലാ ആൾക്കാരും നമ്മുടെ സ ഇതിൽപ്പെട്ട എല്ലാ ആൾക്കാരും ആ ചേർന്നു നടത്തുന്നതാണ് കളിയാട്ടം ആ നമുക്കോരോ വീടിനും പ്രത്യേകം പ്രത്യേകം അതിന് പൈസയെല്ലാം കൊടുക്കലുണ്ട് പിന്നെ പിന്നെ കളിയാട്ടം തുടങ്ങുന്നതിനോട് അനുബന്ധിച്ചിട്ട് കാഴ്ചയുണ്ടാകും നല്ല വർണ്ണശബളമായ കാഴ്ചയായിരിക്കും അതുണ്ടാകും പിന്നെ രാവിലെ തൊട്ടിട്ട് പുലരും വരെ തെയ്യങ്ങളും പിന്നെ ഭക്ഷണം അവിടെ നമുക്ക് ഒരു ഭക്ഷണവും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എല്ലാതര ഇത് ചായ ഇത് ചോറും എല്ലാ ഭക്ഷണവും അവിടെ തന്നെ ഉണ്ടാകും നമുക്ക് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ തെയ്യം കണ്ടിട്ട് എപ്പോൾ വേണങ്കിലും വരാം അതിനു അങ്ങനെ തന്നെ ഇവിടുത്തെ നമ്മൾ എല്ലാവരും സഹായിക്കാൻ പോകണം വേണം പച്ചക്കറി മുറിക്കാനും അങ്ങനെയുള്ള കാര്യത്തിനെല്ലാം പോകണം വേണം എന്നു വെച്ചാൽ തറവാട് കഴിഞ്ഞാണ് പിന്നെ നമുക്കുള്ള പ്രധാനപ്പെട്ട ഒന്നാണ് താനം താനം കളിയാട്ടം എപ്പോഴും ഫെബ്രുവരി മാസത്തിലാണ് വരാറ് തറ തറവാട്ടിൽ ഓരോ തറവാട്ടിലും ഒരോ സമയത്താണ് എല്ലാ ഒരേ മാസത്തിലല്ല അവരവരുടെ സൗകര്യമനുസരിച്ചാണ് അവരവർ ചെയ്യുന്നത് തറവാട്ടിൽ ചെയ്യുന്നത് നമുക്ക് മെയിനായിട്ടുള്ളതാണ് തറ തറവാട് തറവാടിൽ നമ്മളെല്ലാ കുടുംബാംഗങ്ങളും എല്ലാവരും ഒരാളെഴിയാതെ എല്ലാവരും ഒന്നു ചേരണം ഒന്നു ചേർന്നിട്ട് അവിടെ നമ്മൾ ആ ഈ ചെയ്യുന്ന ഉത്സവങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയും വേണം അതിലെല്ലാവരും പ്രവൃത്തിക്കുക തന്നെ വേണം വെറുതേ എൻ്റെ തറവാടെന്നു പറഞ്ഞിട്ട് ഇരുന്നാൽ പോരാ നിർബന്ധമായിട്ടും അവിടെ പോയിട്ട് എല്ലാ പ്രവർത്തനത്തിലും നമ്മൾ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നമ്മൾ ചെ നമുക്ക് കഴിയുന്നതും നമ്മൾ ചെയ്യണം അവിടെ നിന്നു വെച്ചാൽ ആ തറവാട്ടിൽ ഉത്സവം വരുന്ന സമയത്തെല്ലാം ഒരുപാടു ജോലികളുണ്ട് അതെല്ലാം നമ്മൾ നമുക്ക് കഴിയുന്നതു പോലെ നമ്മൾ ഒന്നിച്ചിട്ട് ചെയ്തിട്ട് മുന്നോട്ടു കൊണ്ടുപോകണം അതാണ് നമ്മളുടെ ആചാരങ്ങൾ ശരിക്കും എന്നു വെച്ചാൽ തറവാട്ടിലത് ഉണ്ടായ ഒരു ആചാരങ്ങൾ പണ്ടു മുതലേ ഞാൻ അറിവുള്ള കാലം മുതലേ ഇതേ ആചാരമാണ് പിന്തുടർന്നിട്ടു വരുന്ന വന്നിട്ടുള്ളത്